എനിക്ക് പൂന്തോട്ട പരിപാലനം വളരെ ഇഷ്ടപ്പെട്ടതാണ് പൂവ് ഈ ചെടികളൊക്കെ വച്ച് കഴിയുമ്പോൾ പൂവായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്ക് ഒരു ഭംഗിയാണ് അത് കണ്ടു കഴിയുമ്പം നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും നമ്മൾ വച്ച ചെടിയിലൊരു പൂവ് ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മളെ ഔഷധ സസ്യമായ ആയ സസ്യങ്ങളെല്ലാം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് നല്ല ആര്യവേപ്പ് പിന്നെയെന്താ ലക്ഷ്മിത്തരൂ തുളസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് പോസിറ്റീവ് എനർജിയാണ് ഈ സസ്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അതുപോലെതന്നെ എൻ്റെ എനിക്ക് എൻ്റെ അമ്മയാണ് അമ്മയിൽനിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത് അമ്മയ്ക്ക് ചെടികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചെടികളെല്ലാം മേടിച്ച് വീട്ടിൽ വയ്ക്കുകയും അഥവാ എവിടെ നിന്നെങ്കിലും അടുത്തുള്ള വീടുകളിൽ നിന്നാണെങ്കിലും ചെടികൾ വീട്ടിൽ വയ്ക്കുകയും അതു പരിപാലിച്ച് അതിനെ നട്ടുവളർത്തി അതിൽ നിന്ന് പൂവ് ഉണ്ടാവുകയും അങ്ങനെ കണ്ടു കേട്ടിട്ടാണ് എനിക്ക് അതിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പൂന്തോട്ട പരിപാലനം ഭയങ്കര അതിലും പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്